ചെറുപ്പത്തിൽ എനിക്ക് പ്രധാനമായി ഇഷ്ടപ്പെട്ടിരുന്നത് കുട്ടിയും കോലും ആ ആണ് എൻ്റെ കസിൻസും എൻ്റെ വീടിൻറെ അടുത്തുള്ള കുറേ അധികം കുട്ടികളുമായി ഞാൻ അത് കളിക്കുമായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്ന സമയത്ത് പ്രധാനമായും വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് സ്കൂൾ അവധി എപ്പോഴൊ എപ്പോഴൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങൾ അപ്പോൾ കുട്ടിയും കോലും കളിക്കുമായിരുന്നു കുട്ടിയും കോലും ഒരു പ്രധാനമായൊരു നാടൻ കളിയാണ് അതിൽ നമുക്ക് രണ്ട് ടീം ആയി കളിക്കാം ഒരു ടീം ആയിരിക്കും ബാറ്റ് ചെയ്യുന്നത് മറ്റേ ടീമിലെ ആൾക്കാരായിരിക്കും എറിയുന്നത് നമ്മൾ എറി ന്നെ ഒരു എറിയുന്ന ടീം ബോൾ എറിയുന്ന ടീം മറ്റേ എതിർ ടീം അടിക്കണം അപ്പോൾ അടിക്കുന്ന ക്യാച്ച് പിടിക്കുവാണെങ്കിൽ നമ്മൾ ഔട്ട് ആവും അവർ ക്യാച്ച് പിടിക്കാൻ എത്രത്തോളം റൺ നമ്മൾ എടുക്കുന്നോ അത്രത്തോളം നമ്മൾ വിജയിക്കുന്നു പിന്നെ ഞങ്ങളുടെ കളികൾ ഏറ്റവും കൂടി നിന്നൊരു സമയം വേനൽക്കാല അവധി കാലത്താണ് അപ്പോൾ എൻ്റെ ദൂരെയുള്ള കസിൻസും എൻ്റെ വീടിനടുത്തുള്ള എപ്പോഴും അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടിയും കോലുമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്